കേരള സർക്കാരും കേന്ദ്രസർക്കാരും വിവിധ ആരോഗ്യപരിപാലന പ്രവർത്തനങ്ങൾ കൊണ്ട് വന്നിട്ടുണ്ട് ആരോഗ്യകേരളം പദ്ധതി പ്രധാനമന്ത്രിയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി കൗമാരപ്രായക്കാർക്ക് വേണ്ടീട്ടുള്ള പദ്ധതി വാർധക്യ സഹജമായ പ്രായമായവർക്ക് വേണ്ടീട്ടുള്ള പദ്ധതി കുഞ്ഞുങ്ങൾക്ക് വേണ്ടീട്ടുള്ള പദ്ധതി ഗർഭിണികൾക്ക് വേണ്ടീട്ടുള്ള വിവിധതരത്തിലുള്ള പദ്ധതികൾ ഇങ്ങനെ ധാരാളം പദ്ധതികൾ സർക്കാരിൻ്റെ വകയായിട്ട് ഉണ്ട് ഇവയെക്കുറിച്ചൊക്കെ അറിയുന്നത് സർക്കാരാശുപത്രിയിൽ പോയപ്പോൾ അവിടുത്തെ ഭിത്തികളിൽ എഴുതി ഒട്ടിച്ചേക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത് പിന്നീട് നാഷണലൈസ്ഡ് ബാങ്കിൽ സന്ദർശിക്കാൻ ഇടവന്നപ്പോൾ അവിടെയും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ഭിത്തിയിൽ എഴുതി ഒട്ടിച്ചതായിട്ട് കണ്ടു അങ്ങനെയാണ് ഹോസ്പിറ്റ്ലിൽ കണ്ടത് അവിടുത്തെ ഹോസ്പിറ്റലിലെ ഒരു ജീവനക്കാരിയോടും ബാങ്കിൽ ചെന്നപ്പോൾ അവിടെയുള്ളൊരു ജീവനക്കാരനോടും ആണ് ചോദിച്ചറിഞ്ഞത് പിന്നീട് അക്ഷയവഴിയൊക്കെ അതിനുള്ള അപേക്ഷ കൊടുക്കാം എന്നുള്ളതും അറിയുക ഉണ്ടായി അങ്ങനെ എന്നെ കൊണ്ട് അറിയാവുന്ന ആളുകൾകൊക്കെ ആളുകളിലൊക്കെ ഈ ഒരു പ്രവർത്തനത്തെ പറ്റിട്ടുള്ളൊരു ബോധ്യം അവർക്കൊക്കെ കൊടുക്കാൻ കഴിഞ്ഞു എൻ്റെ വീട്ടിലുള്ളവരെയും ഈ ഒരു ആരോഗ്യപരിപാലന പ്രവത്തനത്തിൻ്റെ ഭാഗമാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൽ നമ്മളതിൽ നന്നായിട്ട് അഭിമാനം കൊള്ളേണ്ട ഒരു വസ്തുതയാണ് എന്ന് വെച്ചാൽ നമ്മൾ ആരോഗ്യം ഒരു സഹജനതയുടെ ആരോഗ്യം സംരക്ഷിക്കേണ്ടത് അവിടെ ഭരിക്കുന്ന സർക്കാരുകളുടെ ഉത്തരവാദിത്വം ആണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മുടെ സർക്കാരുകൾ നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ച വെക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം